സാധാരണ മലയാ മലയാളത്തിൽ തന്നെയാണ് ഞാൻ കൂടുതൽ വാർത്തകൾ കാണുന്നത് അതു പോലെ ഞങ്ങളുടെ പ്രദേശത്ത് നമ്മുടെ പ്രദ പ്രാദേശിക ചാനലുകളും അതറിഞ്ഞ് അതിലൂടെ വാർത്തകളൊക്കെയുണ്ട് പ്രാദേശീയ ആ മലയാളത്തിൽ ധാരാളം വാർത്തകളും അതു പോലെ ചാനൽ മലയാളം വാർത്തകളാണ് സാധാരണ ആ മലയാളം വാർത്തയാണ് പതിവായി കാണുന്നത് രാവിലെയും പിന്നെ ഉച്ചക്കും ഇന്ന് വൈകീട്ടൊക്കെ വാർത്തകൾ കാണും ഞങ്ങളുടെ പ്രദേശത്ത് ഒരു എന്നാ പ്രാദേശീയ ഭാഷയുടെ ചാനലുണ്ട് അതിൽ വാർത്ത എട്ട് മണിക്ക് സ്ഥിരമായിട്ട് നമ്മുടെ ആ ജില്ലയിലെ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളൊക്കെയായിട്ട് ആ വാർത്തകൾ വരും ആ മലയാളത്തിൽ തന്നെയാണ് പ്രാദേശീയ ഭാഷയിൽ തന്നെയാണ് മലയാളത്തിലാണ് ഞങ്ങളത് കേൾക്കാറുണ്ട് അപ്പം നമ്മളുടെ പ്രദേശത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റി അറിയും അതു പോലെ ഇന്ന് ഏഷ്യാനെറ്റ് മനോവഴം മനോരമ തുടങ്ങിയ ന്യൂസ് ചാനലലിലൂടെയൊക്കെ ഞങ്ങൾ മലയാളത്തുള്ള വാർത്തകൾ അപ്പം എല്ലാ കാര്യങ്ങളും അങ്ങനെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് വാർത്തകൾ കൂടുതലും മലയാളത്തിൽ തന്നെയാണ് കാണുന്ന ത് അതു പോലെ തന്നെ ഫോണിലാണെങ്കിലും ന്യൂസ് ചാനലുകൾ അതു കൊണ്ടാണ് ഫോണിൽ ചെയ്തത് കാണാറാണ് ശ്രദ്ധിക്കുക കാണാറുണ്ട് കൂടുതലും മലയാളത്തിൽ തന്നെയാണ് മാതൃഭാഷയും മലയാളത്തിൽ തന്നെയാണ് ന്യൂസൊക്കെ ശ്രദ്ധിക്കുന്നത് കാണുന്നത്